മലയാള ഭാഷയെപ്പറ്റി പറയുകയാണെങ്കിൽ മറ്റു ഭാഷകളെ സംബന്ധിച്ച് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്നൊരു ഭാഷയാണ് ഇപ്പോൾ പുറമേ നിന്നുതന്നെ അതിഥിത്തൊഴിലാളികളായിട്ട് ബംഗാളിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ബാംഗാളികളൊക്കെ ഇപ്പോൾ കേരളത്തിലെ ഒരുപാട് ആൾക്കാർ തന്നെ ഇങ്ങനെ വന്ന് വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ വന്ന് കുറച്ചു സമയം കൊണ്ടുതന്നെ മലയാളഭാഷ എളുപ്പത്തിൽ അവർ പഠിച്ചെടുക്കുന്നു അപ്പോൾ അവർക്ക് എളുപ്പത്തിൽതന്നെ മറ്റുള്ളവരുമായിട്ട് കോൺടാക്ട് അതായത് സംസാരിക്കാനൊക്കെ അവർക്ക് എളുപ്പമാണ് മലയാള ഭാഷയെന്നു പറയുമ്പോൾ പഠിക്കാനുള്ള എളുപ്പവും പറയാനുള്ള എല്ലാം പെട്ടെന്നുതന്നെ അവർക്ക് പഠിച്ച് എടുക്കാൻ കഴിയുന്നുണ്ട് മലയാളഭാഷയെന്നു പറയുമ്പോൾ എല്ലാർക്കും തന്നെ എളുപ്പത്തിൽ പറയാനും എളുപ്പം തന്നെ ഇതാക്കി എടുക്കാനും മനസ്സിലാക്കി എടുക്കാനൊക്കെ പെട്ടെന്നുതന്നെ കഴിയുന്നുണ്ട് പിന്നെ മലയാളികൾ ഇപ്പോൾ അവരുടെ ലാംഗ്വേജ് എവിടെ ചെന്നു കഴിഞ്ഞാലും ഓൾമോസ്റ്റ് ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം എല്ലായിടത്തേയ്ക്കും മലയാളികൾ എത്തുന്നു അവരൊക്കെ എളുപ്പത്തിൽതന്നെ മലയാളം എല്ലാ ലാംഗ്വേജിലുള്ളവർക്കും മലയാളം എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടുതന്നെ അവർ മലയാളം എളുപ്പത്തിൽ പഠിക്കുന്നു പിന്നെ പുറമെ ഉള്ളവരായാണ് ആണെങ്കിൽത്തന്നെ അവർ ഇവിടെ കേരളത്തിൽ വന്നുകഴിഞ്ഞാൽ അവരും മലയാളം പഠിക്കാൻ അവരെ ലാംഗ്വേജ് പഠിക്കാനൊക്കെ ഭയങ്കര താൽപ്പര്യം കാണിക്കുന്നുണ്ട് കാരണം മലയാളം അത്രയ്ക്ക് എന്താപറയുക ഒരു നല്ല ലാംഗ്വേജ് ആയിട്ടാണ് പുറമെ ഉള്ളവരൊക്കെ കാണുന്നത്